ട്രാൻസ്പോർട്ട് ഏജൻസി ആണോ ഞാൻ കുറച്ചുമുൻപെ അതായത് നിങ്ങൾ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു

അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചതാണ് ആ അതേയതേയതേ അപ്പം പിന്നെ ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങളുടെ സ്ഥലത്ത് പോയി പക്ഷേ ഒരു ക്യാബ് ബുക്ക് ചെയ്യുമ്പം നമുക്ക് ഞങ്ങൾ പൈസ തന്നതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങൾ തരണമായിരുന്നു കീറിയ സീറ്റ് പിന്നെ എന്തൊക്കെയാണ് അതായത് വീണുകീറിയ സീറ്റൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇരുന്ന് പോയതെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ആയപ്പഴുത്തേക്കും എനിക്ക് അർജെൻറ്റ് ആയിട്ട് എത്തേണ്ട ഒരു മീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് ബസ്സിൽ വന്നാൽ മതിയായിരുന്നു എന്നിട്ടതിൻ്റെ പകുതി ആകുമ്പോഴത്തേക്ക് എനിക്ക് എറണാകുളം ആയിരുന്നു പോകേണ്ടത് കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് ക്യാബ് പഞ്ചർ ആയി അങ്ങനെ കുറെ ടൈം പോയി പിന്നെ എങ്ങനെയൊക്കെയോ ആണ് എനിക്ക് അതായത് ഒരഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഞാനവിടെ എത്തിയത് ഇനിയിപ്പോൾ എന്തായാലും ഹോർൺ പോലും പ്രവർത്തിക്കുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ വേറെ ഒരാൾക്ക് ഒരനുഭവം ഇല്ലാണ്ട് നിങ്ങൾ നോക്കണം ഞാൻ അതുപറയാൻ വേണ്ടി വിളിച്ചതാണ് ഓക്കെ ശരി